ആ വരൂ ഇരിക്കൂ എന്താണ് അസുഖം എന്താണ് പനി ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉണ്ടല്ലെ ഓക്കെ എത്രി ദിവസമായി തുടങ്ങിയിട്ട് മിനിഞ്ഞാന്ന് തുടങ്ങിയതാണല്ലേ ഓക്കെ ആദ്യം എന്താണ് തൊണ്ട വേദന വന്നതാണൊ അതോ

ഓക്കെ എവിടെയെങ്കിലും യാത്ര എന്തേലും ചെയ്തിട്ടുണ്ടായിരുന്നോ വീട്ടില് ഇയാൾക്ക് മാത്രമാണോ പനി അതോ വീട്ടിലാർക്കേലും പനി വന്നിട്ടുണ്ടോ അങ്ങനെ പകർന്നതാണോ ഓക്കെ രണ്ട് ദിവസമായി അല്ലേ ഇതിപ്പോൾ ഓക്കെ കോവിഡിനു വീട്ടിലുള്ള മരുന്നൊന്നും എടുത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും വീട്ടിലുള്ള മരുന്നൊക്കെ എടുത്ത് കഴിച്ചുകഴിഞ്ഞാൽ ഏതാ അസുഖമെന്നോ എന്താണെന്നൊന്നും അറിയില്ല അത് ജെസ്റ്റ് പനിയാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളും വേറെ വല്ല അസുഖമാണെങ്കിൽ അത് നമുക്ക് പിന്നെ അത് ഗുരുതരമായിട്ടൊന്നുങ്കിൽ മാറാൻ ചാൻസുണ്ട് ആ അപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ രണ്ടു ദിവസമായി വരുന്നു അല്ലേ തൊണ്ട വേദന നല്ല തൊണ്ട വേദനയുണ്ടോ അതേ അല്ലെ തലവേദനയോ തലവേദനയും ആണല്ലേ ഓക്കെ തലവേദനയോ തലവേദനയും പനിയൊക്കെ കണ്ടിന്യുസായിട്ടുണ്ടോ അതോ വൈകുന്നേരങ്ങളിൽ മാത്രമാണോ നമുക്കിപ്പോൾ മരുന്ന് എഴുതി തരാം അതിന് അതേപോലെ വീട്ടിൽ പോയി പറഞ്ഞാൽ ചൂട് വെള്ളം കൊണ്ട് ആവി പിടിക്ക് അതേപോലെ രണ്ട് ദിവസം കുളിക്കണ്ട തല നനയ്ക്കണ്ട അപ്പോൾ ആവി പിടിച്ചാൽ മതി പിന്നതേപോലെ ഉപ്പ് വെള്ളം ചൂട് വെള്ളത്തില് ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായ കഴുകുക അതേപോലെ രണ്ട് പ്രാവശ്യം ബ്രഷൊക്കെ ചെയ്ത് പറഞ്ഞാൽ തൊണ്ട വേദനയ്ക്ക് കുറച്ചൊരു ബെറ്ററുണ്ടാകും അങ്ങനെയാണെൽ പിന്നെ വീട്ടില് കുട്ടികള് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കില് അവരുവായിട്ട് അധികം കോണ്ടാക്ട് ഒന്നും ചെയ്യണ്ട അവർക്കും പിടിക്കും കുട്ടികൾക്കൊക്കെ പകർന്ന് വന്നാൽ പിന്നവർക്ക് ഭേദപ്പെടാൻ കുറച്ച് സമയം എടുക്കും അവർക്ക് പെട്ടന്ന് മാറില്ല അവർക്ക് പ്രതിരോധ ശേഷി കമ്മിയാരിക്കുവല്ലോ ബാക്കി എല്ലാരും കോൺടാക്ട് വേണ്ട എന്തായാലും രണ്ടുദിവസിനുള്ളിൽ മാറിരിക്കും ഇന്ന് മരുന്നെഴുതി തരാം മരുന്നും കഫ് സിറപ്പും ഞാൻ എഴുതി തരാം നാളേക്ക് മാറിയില്ലെങ്കിൽ ഒന്ന് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ റ്റൈഫോയിഡ് എന്തെങ്കിലും ആണെങ്കില് നമുക്കറിയാം ആ അപ്പോൾ ഒന്ന് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്ത് വരണം ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യുവാണെൽ അറിയാൻ പറ്റും അത് ചെയ്തിട്ട് വന്നാൽ മതി ഓക്കെ